ദി പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന ബുക്കാണ് എനിക്ക് ഒരുപാട് ബുദ്ധിപരമായൊരു വെല്ലുവിളി ബുദ്ധിപരമായ വെല്ലുവിളി എന്ന് പറയാൻ പറ്റില്ല ആ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഞാൻ പതിയുന്ന കാര്യങ്ങൾ എങ്ങെന ഒക്കെയാണ് എന്നെ ബാധിക്കുന്നത് എന്ന് പറ്റിയാണ് അത് ആ ഒരു ബുക്കിൽ ജോസഫ് മർഫി എന്ന് പറയണ എഴുത്തുകാരൻ എഴുതീട്ടുള്ളത് അത് വായിച്ച സമയത്ത് ഞാൻ ഒരുപാട് ചിന്തിച്ചിരുന്നു ഇങ്ങനെ ഒക്കെ നമ്മളെ സ്വാധീനം സ്വാധീനിക്കാൻ പറ്റുമോ എന്നുള്ളത് വളരെ രസകരമായി ആൾ അത് വിവരിച്ചിട്ടും ഉണ്ട് അതിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയുന്ന പല കാര്യങ്ങളും നമുക്ക് പിന്നീട് അത് നമുക്ക് നമുക്കാവശ്യം വരുന്ന അല്ലെങ്കിൽ നമുക്കത് എപ്പോഴെങ്കിലും നമ്മൾക്ക് അത് എന്തെങ്കിലും രീതീൽ നമുക്കത് നമ്മളെ അത് ബാധിക്കും എന്നുള്ളതാണ് അതിൽ പറഞ്ഞ് വരുന്നത് ഞാൻ ഈ പുസ്തകത്തെ പറ്റി എൻ്റെ സുഹൃത്തുക്കളായിട്ടും എൻ്റെ ഫാമിലിയായിട്ടും ഒക്കെ ചർച്ച ചെയ്യാറുണ്ട് അപ്പം അവരും സംസാരിച്ചപ്പളും അവരും പറഞ്ഞു ഇത്രയും നല്ല ബുക്കാണ് നല്ലതാണ് നല്ല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളെക്കെയാണ് ഇതുവരെ നമുക്കറിയാത്ത പല കാര്യങ്ങളും പല അറിവുകളും അതീന്ന് നമുക്ക് കിട്ടാറുണ്ട് കിട്ടുന്നുണ്ട് എന്ന് അവരെൻ്റടുത്ത് പറഞ്ഞിരുന്നു